ഞാന് ഒരു എൽ ഇ ഡി ടി വി വാങ്ങിയിരുന്നു അത് മോശം പാക്കേജ് ചെയ്തത് ചെയ്ത കാരണം അത് പെട്ടന്ന് പൊട്ടുകയാണുണ്ടായത് ഓണ്ലൈനായിട്ടാണ് ഓര്ഡര് ചെയിതിരുന്നത് അതിന്റെ മോശം പാക്കേജിംഗ് കാരണം അത് എനിക്ക് ഉപയോഗിക്കാന് കഴിയാതെ നശിച്ചു മോശം പക്കേജിങ്ങിനെ കുറിച്ച് പരാതിപ്പെടാന് ഡെലിവറി കമ്പനിയിലേക്ക് ഞാന് വിളിച്ചു പകരം ഒരു റീഫണ്ട് അതിന് അഭ്യര്ത്ഥിക്കുകയുണ്ടായി